നമ്മുടെ പാലക്കാട് ജില്ലേലേക്ക് ജില്ലയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിലെക്ക് ഒരോപ്പണിങ് അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തിൽ നിന്നൊരോപ്പണിങ് എന്നുള്ള രീതിയില് നമുക്ക് പാലക്കാട് ജില്ലയെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് വഴി ആണ് വരാൻ പറ്റുക അല്ലെങ്കിൽ പിന്നെ വരണത് നമുക്ക് തിരുവനന്തപുരം വഴി ആണ് അതിനേക്കാട്ടിളും എളുപ്പം നമ്മളെല്ലാ ആൾക്കാരും യൂസ് അധികവും ചെയ്യു യാത്രക്കാര് വരണത് കൂടുതല് യാത്രക്കാര് വരുന്ന റോഡ് മാർഗം വരാൻ പറ്റിയതുമായ നല്ല വഴിയാണ് കാരണം എൻ എച്ച് ഹൈവേയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലൊരോപ്പണിങ് നമ്മുടെ പാലക്കാട് ജില്ല വഴി തന്നെ ആണ് പോണത് എൻഎച്ചും കാര്യങ്ങളും അതിൻ്റെ വികസനം കാര്യങ്ങളൊക്കെ ആറുവരി പാതയും കാര്യങ്ങളും നടന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നേ നമ്മളിപ്പോൾ നമ്മുടെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കാന്നു പറഞ്ഞാൽ ഇപ്പോൾ നമ്മള് സ്ഥലങ്ങള് കുറെ അധികം നമുക്ക് പാലക്കാടുണ്ട് എന്നാൽ പക്ഷേ നമുക്ക് അവിടേക്കെത്തിപ്പെടാനോ പക്ഷേ പാരിസ്ഥിതികലോല പ്രദേശങ്ങളാണ് കൂടുതലായിട്ടും പാലക്കാട് എന്ന് പറയണത് പച്ചപ്പും അങ്ങനെ മല കുന്ന് അങ്ങനെത്തെ ഏരിയകളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ കേറിയിട്ട് പുതിയ പുതിയ ബിൾഡിങ്ങുകളോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജികള് പുതിയ വികസന പരിപാടികളൊന്നും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഈ അധികം മലയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കത് ഇടിച്ച് നിരത്താനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കാരണം നമുക്ക് ഇതൊര് പ പഴയ പഴമര് പഴമ എന്ന രീതിയില് നമുക്ക് നിലനിർത്താൻ നമുക്ക് പാലക്കാട് ജില്ലേനെ പറ്റൂള്ളൂ ഇവിടെ പുതിയെ രീതീലുള്ള ടെക്നോളോജികള് അല്ലെങ്കിൽ ഇവിടെ കമ്പനികള് കാര്യങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേതായ നമുക്ക് പിന്നെ പാടങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടി വരിക നമുക്ക് പാൽ പാലക്കാടിനെകുറിച്ച് ആര് നോക്കിയാലും അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ നെൽ കൃഷീയും കാര്യങ്ങളൊക്കെ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ആണ് കെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നുണ്ട് പാലക്കാട് ജില്ലേനെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പുതിയൊരു വികസന മാർഗ്ഗത്തിലേക്കിറങ്ങാൻ പിന്നെ നമുക്ക് നോക്കാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ടൗൺ ഏരിയകളിലൊക്കെ കുറച്ച് സ്ഥലം കുറവാണ് അതായത് എന്താന്ന് പറഞ്ഞാൽ ആൾക്കാര് കൂടുതലായിട്ട് തിങ്ങി പാർക്കുന്ന സ്ഥലവാണ് അപ്പോൾ അവിടെ റോഡിനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്കെപ്പൊഴും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പരിസ്ഥിതി പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കാണാനൊക്കെ മികച്ച സ്ഥലവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് പരിസ്ഥിതീനിവിടെ നശിപ്പിക്കാനൊ അല്ലെങ്കിൽ പരിസ്ഥിതി വേറേ രീതീലേക്കു മാറ്റാനോ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പാലക്കാട് ജില്ലയില് വരുന്നുണ്ട്